വിദ്യാഭ്യാസം കൊണ്ട് എത്ര പഠിച്ചാലും ജോലി കിട്ടണമെങ്കിൽ പണിയാണ് ഡിഗ്രി കഴിഞ്ഞ് ബിടെക്ക്കൊക്കെ കഴിഞ്ഞവർക്ക് ജോലി കിട്ടാൻ വലിയ പണിയാണ് അതായത് അതിന് പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മള് ലോണെടുക്കാൻ പോയത് ലോൺ കിട്ടണമെങ്കിൽ തന്നെ കുറെ പണികളുണ്ട് അതിന് ലോണും കിട്ടുകയില്ല അതിൻ്റെ ബാക്കില് കുറെ നടക്കണം സ്കൂള് സ്കൂളിനുള്ളിൽ പോകുവാണെങ്കിൽ അതിനുള്ള ഫീസ് കാര്യങ്ങള് എല്ലാം കൊടുക്കാതെ നമുക്കവിടെ പഠിക്കാനുള്ള അവസരവും ബുക്കിനാണെങ്കിലും എല്ലാം ചിലവിനും പൈസയും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് ആവശ്യമായിട്ടുള്ള കോഴ്സ് വർക്ക് പിന്നെ ട്യൂഷന് ഇതിനൊക്കെ പോയി പോയ പോകണമെങ്കില് പൈസ വേണം പിന്നെ ഇതിനൊക്കെ പോയാലാണ് എന്തെങ്കിലുമൊക്കെ എന്താ പഠിക്കാനൊക്കെ പറ്റുകയുള്ളു എന്തെ ജോലി സാധ്യതയുള്ള മേഖലയിലൊക്കെ എത്തിയാണെങ്കില് പിന്നെ ട്യൂഷനും കോച്ചിങ് സെൻ്ററ് വലിയ തോതില് സ ധനസഹായം കിട്ടുന്ന നൽകുന്നതാണ് ട്യൂഷൻ ഫീസ് സ്ട്രീമുകളൊക്കെ പിന്നെ അങ്ങനെയൊക്കെയാണ് പിന്നെ ഗുണനിലവാരം കുറവാണ് ചിലവിൻ്റെ കാര്യത്തിൽ കൂടുതലാണ് ഇപ്പം പഠിച്ചിറങ്ങിയ കൂടുതലാൾക്കാർക്കും എ പ്ലസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ സീറ്റുകള് കുറവുമാണ്